ജീവിത കാലം മുഴുവൻ എനിക്ക് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എൻ എന്നെ എനിക്ക് കാര്യങ്ങൾ പണ്ട് എൻ്റെ മനസ്സിലേക്ക് പ പഠനങ്ങളായിട്ടു തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടുള്ള വിശുദ്ധ ബൈബിളാണ് ബൈബിൾ ആ പുസ്തകത്തെ പറ്റിയാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് അതേപ്പറ്റി വിശദീകരിക്കാണെങ്കിൽ എനിക്ക് അത് ഒരോ ദിവസം നമ്മൾ പുസ്തകം മറക്കാത്ത അനുഭവങ്ങളാണ് എല്ലാം വായിക്കുന്തോറും നമ്മുടെ മനസ്സിനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരികയും അതു വായിച്ചു കേൾക്കുന്തോറും നമുക്ക് നല്ല നല്ല അനുഭവങ്ങളിലേക്കു പോകാനായിട്ടു പറ്റും നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ടു പോകാനും നല്ല നല്ല അനുഭവങ്ങളായിട്ടും ആ യേശു ക്രിസ്തുവിൻ്റെ ചില നല്ല വചനങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് ആ ഓരോ ദിവസം വായിക്കുമ്പം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ട് പോകാനും മറ്റുള്ള സഹജീവികളുമായിട്ടു ബന്ധപ്പെട്ടു പോകാനും കുടുംബത്തിലെ കാര്യങ്ങളിൽ മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ട കാര്യങ്ങളായാലും ആദരിക്കേണ്ട കാര്യങ്ങളായാലും എല്ലാം നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടേ എങ്ങനെയാണെന്നു അതിനകത്തു നിന്നു പഠിക്കാൻ ഒരുപാടുണ്ട് അതു പഠിപ്പിക്കും ഞാനത് സ്ഥിരമായിട്ടു വായിക്കുന്നുണ്ട് ആ മിസ്റ്റർ ബൈബിളിനെ പറ്റി മാത്രമേ എനിക്ക് കൂടുതൽ പിന്നെ വേറൊരു മറ്റുള്ള മഹാന്മാരുടെ ജീവചരിത്രങ്ങളൊക്കെ ഞാൻ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും പഠിച്ചിട്ടുമുണ്ട് ചെറുപ്പ കാലത്ത് അത് അതിനകത്തു നിന്ന് എനിക്ക് ഇത്രയും ആയിട്ട് എൻ്റെ ജീവിതത്തെ പഠിപ്പിച്ച മറക്കാനാകാത്ത എനിക്ക് എന്തെങ്കിലും പഠനങ്ങൾ തന്നിട്ടുള്ളത് ബൈബിൾ തന്നെയാണ് പിന്നെ മറ്റു വിശു മറ്റു മഹാന്മാരുടെ ചരിത്രങ്ങൾ മഹാത്മാ ഗാന്ധിയുടെ ആയാലും മറ്റു എബ്രഹാം ലിങ്കൻ്റെ ആയാലും അങ്ങനെ ഒക്കെയുള്ള ചിലരുടെ വി മഹാന്മാരുടെ ചരിത്രങ്ങളും നമുക്ക് പ്രചോദനമാണ് എങ്കിൽ തന്നെയും ഇത് എൻ്റെ മറക്കാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനവും മറക്കാൻ പറ്റാത്ത അനുഭവമായിട്ടു നിൽക്കുന്നത് വിശുദ്ധ ഗ്രന്ഥഭാ ത്തിൽ ആ പുസ്തകം വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ് ബൈബിൾ അതിൽ നിന്നു വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ പറ്റി വി വിശദീകരിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം നമുക്ക് എന്താ ഓരോ ദിവസവും നമുക്ക് ഓരോരോ ആവശ്യങ്ങൾ ഓരോരോ സമയത്തു നമ്മൾ വായിക്കാൻ എടുക്കുന്നതെല്ലാം നല്ലത് നമുക്ക് നല്ല നല്ല ആശയങ്ങൾ മാത്രമേ ഉള്ളൂ അതു നമ്മുടെ ജീവിതം പോകുന്ന വഴിക്കായാലും നമ്മുടെ ക നമ്മുടെ പ്രവർത്തനങ്ങൾ മേഖലയിലായാലും ശരി നമ്മളെ കുടുംബ ജീവിതത്തിനായാലും ശരി നമ്മുടെ പൊതു ജീവിതത്തിലായാലും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പാഠമാണ് എല്ലാം നല്ല നല്ല എന്താ ചെയ്യേണ്ടതെന്ന് അതിനകത്ത് ക കറക്റ്റായിട്ടു പറയും നമ്മൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ ആയിരിക്കണം എങ്ങനെ മറ്റുള്ളവരോടു പെരുമാറണം എല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും പറ്റത്തില്ലെങ്കിലും കുറേയൊക്കെ നമുക്ക് സ്വാധീനിക്കുന്നുണ്ട് നമമുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്

അതാണ് നമ്മുടെ പുറമെ പറ്റിയാൽ എനിക്ക് കൂടുതൽ പാഠങ്ങൾ തന്നിട്ടുള്ള പുസ്ത ഇതു ബൈബിൾ വായനയിലൂടെയാണ് എന്നിട്ട് ഓരോ മ പിന്നെ മറ്റു മഹാന്മാരുടെ ചരിത്രങ്ങളും അവരുടെ ജീവിത രീതികളുമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതുപോലെ കിട്ടിയിട്ടില്ല കറക്റ്റായിട്ട് ഇതു നല്ലൊരു ആശയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു ആശയം അതിനകത്തു നിന്നു കിട്ടുന്നുണ്ട് ബൈബിൾ വായിക്കുമ്പം അപ്പം നമ്മൾ സ്ഥിരമായിട്ടു ഞാൻ വായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഞാനത് വായിക്കുന്നുണ്ട് പിന്നെ മറ്റു ദേവാലയങ്ങളിലായാലും അതിൻ്റെ വിശദീകരിച്ചുള്ള ഇതു കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല അനുഭവങ്ങൾ കിട്ടുന്നുണ്ട് നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നും അതിനെ പറ്റിയുള്ള വിശദീകരണങ്ങളൊക്കെ കിട്ടുമ്പം നമുക്ക് നല്ലതാണെന്നു തോന്നും നമുക്ക് ജീവിതത്തെ ക്രമീകരിക്കാനൊക്കെ പറ്റുന്നുണ്ട് നമുക്ക് പിന്നെ ചെയ്യാനായിട്ടു തോന്നുകേല അതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം നന്മയിൽ നന്മ നമ്മൾ ചെയ്യുന്ന തിന്മയാണോ നന്മയാണോ എന്നുള്ള തിരിച്ചറിയാൻ ഉള്ളൊരു ബോധ്യം നമ്മളെ മനസ്സിന് എപ്പോഴും ഇങ്ങനെ കിട്ടും നമ്മൾ തെറ്റു ചെയ്യുമ്പോഴത്തേക്ക് അതു തെറ്റാണെന്നുള്ള ഒരു ബോധ്യം വരും അപ്പോൾ അതിൽ നിന്നു മാറാനായിട്ടുള്ള ഒരു അവസരം കിട്ടും അപ്പോൾ അതു നമ്മൾ വറും ക്രൂരമായിട്ടുള്ള ചിന്തകളും മറ്റുള്ള ദോഷപ്പെടുത്തുന്ന ചിന്തകളുമൊന്നും മനസ്സിൽ വരത്തില്ല അങ്ങനെയുള്ള അനുഭവങ്ങളാണ് അതിനകത്തു കൂടുതലായിട്ട് നല്ല അനുഭവങ്ങളാണ് അപ്പോൾ ദൈവ ദൈവത്തിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടു നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് കുറേയൊക്കെ അതിനെ ആശ്രയിക്കാനും അങ്ങനെയുള്ള അതു മനസ്സിൽ സൂക്ഷിക്കാനും അപ്പോൾ അതു നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ഒരു പാഠമാണ് അതൊക്കെ നമ്മളത് ഓരോന്നു പഠിച്ചാന്നല്ലോ നമ്മൾ ഓരോന്നു മനസ്സിലാക്കി ഓരോന്നു ലഭിക്കുന്ന ഓരോ സ്ഥലത്തു നിന്നു നമുക്ക് ലഭിക്കുന്ന അറിവുകളാണല്ലോ നമുക്ക് നമുക്ക് കൂടുതൽ പ്രയോജനം വരുന്നത് എൻ്റെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റുന്ന മറക്കാനല്ല ഒന്നും മറക്കാൻ പറ്റുന്നില്ല അതിനകത്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലുണ്ട് വായിക്കുമ്പം കിട്ടുന്ന കാര്യങ്ങൾ കുറേയൊക്കെ അതുകൊണ്ട് നമുക്ക് എല്ലാം അനുസരിച്ചു പ്രവർത്തിക്കാൻ പറ്റത്തില്ലെങ്കിലും കുറേയൊക്കെ നമുക്കത് ജീവിതത്തിൽ ക്രമീകരിക്കാനൊക്കെ പറ്റും അതാണ് അതിനെപ്പറ്റി വിശദീകരിക്കാൻ അതാണ് കൂടുതലായിട്ടും ഉള്ളത് പിന്നെ വേറെ പുസ്തകങ്ങളിൽ നിന്നും അത്രമാത്രം കിട്ടുന്നില്ല അത്രയും കിട്ടുന്നില്ല പിന്നെ ഒരോരു മഹാന്മാർ ജീ ജീവിച്ച രീതികളും അവരുടെ അവരുടെ പിന്നെ ചരിത്രങ്ങളും അവരുടെ വീര സാഹസിക ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇതു നമുക്ക് ബൈബിളിൽ കിട്ടുന്നത് പോലെ ശരിക്കും നല്ല ആശയങ്ങളും നല്ല മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ടു തന്നെ ബൈബിളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ വയ്യാത്ത എന്നെ എൻ്റെ പാഠങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് ഇഷ്ടമാണ് അതേപ്പറ്റി കൂടുതൽ വിശദീകരിക്കാൻ ഇനി കൂടുതലായിട്ട് എന്താ നമുക്ക് ഇതാണ് ജീവിതത്തിൽ എല്ലാം നമുക്ക് ക്രമീകരിക്കാൻ അതിനകത്തു നിന്നു സാധിക്കുന്നുണ്ട് അതുകൊണ്ടു നല്ല മാർഗ്ഗങ്ങൾ ജീവിക്കാനും നല്ല നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യാനുമൊക്കെ അതുകൊണ്ടു കഴിയുന്നുണ്ട് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം അതു വായിക്കാൻ എനിക്ക് വീണ്ടും വീണ്ടും തോന്നുന്നു തോന്നുന്നുണ്ട് അപ്പം പിന്നെ ഓരോ സ്ഥലത്തു നിന്ന് അതിൻ്റെ ആശയങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വായിക്കാനുമൊക്കെ കിട്ടും